ആ ഗുഡ് മോർണിംഗ് ഫ്രിഡ്ജാണ് കേട്ടോ

പിന്നെ ബ്രാൻഡ് ആയിട്ട് ഒന്നും ഇല്ല ഞാൻ ഏതാണ് നല്ല ഓഫർ ഉള്ളതും പിന്നെ നല്ലതും ആയിട്ടുള്ളത് ഏതാണിപ്പോള് അത് മതി അത് നോക്കാം ആ നോക്കാം ഓക്കെ എനിക്ക് പാറ്റേൺ ഡയമണ്ട് മതി കേട്ടോ പാറ്റേണുള്ളത് മതി ആ ആ ഓക്കെ നമുക്ക് ആ ഡയമണ്ട് പാറ്റേണില് ഡബിൾ ഡോറാ നോക്കുന്നത്

ഈ ഇത് സിംഗിൾ ഡോറിനാണോ സിംഗിൾ ഡോറിന് വന്നിട്ട് എത്രയാണ് പ്രൈസ്

ആ ഡബിൾ ഡോറിൻ്റെയോ നമുക്ക് സിംഗിൾ ഡോര് നോക്കാം എത്രയാ ടു സ്റ്റാർ ആണ് കറൻറ്റ് അപ്പോള് എങ്ങനെ ആവും

ഉം ഉം വാതിൽ ഇല്ല വാറണ്ടിയോ പത്ത് വർഷം ഓക്കെ ഇ എം ഐ എങ്ങനെയാണ്

ആ ഒരു ടെൻ തൗസൻഡ് ഇപ്പോള് അടയ്ക്കാൻ ഉണ്ട് ഓൾറെഡി ബജാജ് ഫിനാൻസിൻ്റെ ഉണ്ട് ഇ എം ഐടെ കാർഡ് ഉണ്ട് ഉം ഓക്കെ ഉം എനിക്ക് ഈ ഡയമണ്ട് ഷേപ്പിന്റേത് തന്നെ മതി കേട്ടോ ആ എടുത്തോളാൻ പറയൂ ഇപ്പോഴില്ല ഒരു കുറച്ച് നാളും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ആലോചിക്കുന്നുണ്ട് എടുക്കാനായിട്ട് ഉം ഡെലിവറി ഇപ്പോള്ത്തന്നെ കിട്ടുമല്ലോ അല്ലേ വീട് ശാസ്തമംഗലം

ഓക്കെ താങ്ക് യു